ആ പറയൂ ആരാണ് ആ അതേ പറയൂ ആരാന്ന് ആ എന്താ ആ പറഞ്ഞോളു ആ ആ ആണോ ആ എന്നാണ് പരിപാടി എന്നാണ് മാർച്ച് മൂന്നാന്തിയല്ലെ ആ അപ്പയെങ്ങനാണ് റിസപ്ഷനാണോ അല്ലെ നമ്മുടെ കല്യാണം വെഡ്ഡിങ്ങ് മുഹൂർത്തത്തിനാണോ ഉദ്ദേശിക്കണത് ഏങ്ങനെയാണ് ആ ആ ഓ ആണല്ലേ ആണല്ലേ ആ ആ ഓ ആണല്ലേ ഓ ഇപ്പം വേണ്ടതല്ലെ ആ അപ്പയിത് തീമെന്താണെന്നൊന്ന് പറയോ തീം നിങ്ങടെയെങ്ങനാണ് ഉദ്ദേശം ആ ഓ ആണല്ലെ ആണല്ലെ ഏ വേണ്ടത് അപ്പം നിങ്ങൾ ഇപ്പയെങ്ങനെയാണ് നിങ്ങൾ വന്ന് പർച്ചേയ്സ്സ് ചെയ്യുവോ അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് ചെയ്ത് തരണോ എന്താ ഉദ്ദേശിക്കണത് നമ്മൾ ഏ വന്ന് ആണല്ലെ ആ അപ്പം അതിൻ്റെ എന്താ നിങ്ങളുടെ റിക്ക്വൊയർമെൻട്സ്സൊക്കൊന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാനതിനനുസരിച്ച് ഇത് ചെയ്യായിരുന്നു അറേഞ്ച് ചെയ്യായിരുന്നു ആം ഞായക്കാം അപ്പം നിങ്ങൾ നേരിട്ട് വന്ന് ആ ആ ഓ ആണല്ലെ അപ്പം നിങ്ങൾ വെഡ്ഡിങ്ങ് പ്ലാനറാണല്ലെ ഇപ്പം നമ്മൾ എടുത്ത് ചെയ്ത് കൊടുക്കുന്നതാണ് ഒ ആ അപ്പം നമ്മടിവിടെ ആദ്യമായിട്ടാണോ വരണത് നമ്മുടെ കാൾട്ട് കസ്ററ് മുമ്പ് വന്നിട്ടില്ല്യാന്ന് തോന്ന്ണൂല്ലെ ഓക്കെ ഓക്കെ ആ അപ്പം അതിൻ്റെ നിങ്ങൾ വന്ന് എന്തൊക്കെയാ റിക്ക്വൊയർമെൻട്സ്സൊന്ന് പറയൂ അപ്പം ഞാനതിൻ്റെ റേറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ എന്നെത്തിയ്ക്കാം എന്നുള്ളതൊക്കെ ഞാൻ ആദ്യം നേരിട്ട് ഒന്ന് വന്ന് നോക്കു എന്നിട്ട് ഞാനതിനെ പ നമുക്ക് നമുക്ക് ഡിസ്ക്കസ്സ് ചെയ്യാം നേരിട്ട് ഡിസ്ക്കസ്സ് ചെയ്തിട്ട് നമുക്കതെന്താന്ന് വെച്ചാ ചെയ്യാം ആ ഓക്കെയാണ് എ ആ ആ ആ ആണല്ലെ ആ

ഓ ഓ ആ ആ ശരി ആണല്ലെ ആ അപ്പമത് നമുക്ക് ആദ്യം നിങ്ങൾ വരൂ നമുക്ക് നോക്കീട്ട് നേരിട്ട് നമുക്കിതിനേക്കുറിച്ച് നമുക്ക് ഒന്നുങ്കൂടെ നമ്മുടെ എത്രത്തോളം വേണംന്നക്ക അറിഞ്ഞിട്ടേ അപ്പൈനൻസരിച്ച് ഞാൻ ഡിസ്കൗണ്ട് ചെയ്ത് ഞാൻ തരാം കുഴപ്പമില്ല ഓക്കെ ഓക്കെ എന്നാ ശരിയെന്നാ ട്ടാ ആ എ എൻ്റെ പേര് വന്ദന ഞാൻ ലൊക്കേഷനൊക്കെ ഞാനയച്ചേക്കാട്ടോ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ ശരി ഓക്കെ